ഓൺലൈൻ ഷർട്ടുകൾ വാങ്ങിയാൽ തരത്തിലൊത്തതും വലിപ്പത്തിലൊത്തതും സൈസിലൊത്തതും നമ്മൾക്ക് കിട്ടില്ല ഓൺലൈനിൽ ഷർട്ട് വാങ്ങുന്നതിനേക്കാൾ ഉത്തമം കടയിൽപ്പോയി ഷർട്ടുകൾ വാങ്ങുന്നതാണ് നമുക്ക് ഇഷ്ടമുള്ള നിറത്തിലും വണ്ണത്തിലും വലിപ്പത്തിലും ഉള്ള ഷർട്ടുകൾ തെരഞ്ഞെടുക്കാം ഓൺലൈൻ വഴി ഷർട്ടുകൾ വാങ്ങുമ്പോൾ അവ കാണിക്കുന്നത് പോലെയല്ല നമ്മൾക്ക് കൊണ്ട് തരുന്നത് അത് മാറ്റങ്ങളുണ്ടാകും പിന്നെ നമ്മൾ വിചാരിച്ച സമയത്ത് ഷർട്ടുകൾ കിട്ടില്ല അതിലും എത്രയോ നല്ലതാണ് കടയിൽപ്പോയി നമുക്ക് ഇഷ്ടപ്പെട്ട ഷർട്ട്കൾ തിരഞ്ഞെടുക്കുന്നതും നിറത്തിലും വലിപ്പത്തിലും വണ്ണത്തിലും നൂറ് രൂപ കൂടിയാലും ആ ഷർട്ടാണ് ഏറ്റവും ഉത്തമം ഓൺലൈൻ ഷർട്ടുകൾ എടുക്കുന്നത്